ഹലോ ആ ഗുഡ് മോണിംഗ് പറയൂ ആ ഓക്കെ ആ എത്ര പേരുണ്ട് മേഡം ഫാമിലിയായിട്ടാണോ വരുന്നത് ആ ഓക്കെ ആ മേഡം നമ്മുടെ ഫെസ്റ്റിവെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തൃശൂർ പൂരം ഒരു വലിയ ഫെസ്റ്റിവലാണ് അതുപോലെതന്നെ വയനാട്ടിലും മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വള്ളിയൂർക്കാവമ്പലം അവിടുത്തെ ഉത്സവം ഒരു നല്ല ഫെസ്റ്റിവലാണ് അതുപോലെതന്നെ കൊട്ടിയൂര് ഉത്സവമുണ്ട് ഗുരുവായൂര് ക്ഷേത്രം അങ്ങനൊരുപാട് ഫെസ്റ്റിവൽസൊക്കെ വരുന്നുണ്ട് അതുപോലെതന്നെ ഓണം വിഷു ദീപാവലി ഇങ്ങനത്തെ ഫെസ്റ്റിവൽസൊക്കെ ഇവിടെ കേരളത്തില് ആ ഒര് ഫെസ്റ്റിവൽസാണ് അതുപോലെതന്നെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത്തപ്പൂക്കളം ഇടും അതുപോലെതന്നെ പുതിയ ഡ്രെസ്സിടും അങ്ങനെ കുറച്ച് പരുപാടികളൊക്കെയാണ് ദീപാവലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീറ്റ്സ് കഴിക്കും അതുപോലെതന്നെ പടക്കം പൊട്ടിക്കും അങ്ങനത്തെ പരുപാടികളൊക്കെ അതുപോലെതന്നെ വിഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പുതിയ കോടി അതുപോലെതന്നെ വിഷുക്കൈനീട്ടം അങ്ങനത്തെ പരുപാടികളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെകൂടെ ഒരാളുണ്ടാവും ആ നിങ്ങളുടെകൂടെ ഒരാളെ വിടും അപ്പം അതിൻ്റേതായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് തരും നിങ്ങൾക്ക് നമ്മൾക്കൊരുപാട് പ്ളേസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര എത്ര ദിവസത്തേക്കാണ് നിങ്ങള് വരുന്നതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം മേഡം ആലപ്പുഴയിലെ വള്ളം കളി അങ്ങനത്തെ പരുപാടികളൊക്കെയുണ്ട് അതൊക്കെ എക്സ്പ്ളോർ ചെയ്യണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾക്കതൊക്കെ എക്സ്പ്ളോർ ചെയ്യാം റെസ്റ്റോറന്റ് നമ്മൾക്ക് അവൈലബിൾ ആണ് ആ റെസ്റ്റോറന്റ് നമുക്ക് അവൈലബിൾ ആണ് ഫുഡ്ഡും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു തരും പിന്നെ നിങ്ങൾക്ക് എക്സ്പ്ളോർ ചെയ്യാനുള്ള വണ്ടി കാര്യങ്ങളൊക്കെ നമ്മള് തന്നെ അറേഞ്ച്മെന്റ് ചെയ്തു തരും ഇല്ലെങ്കില് നിങ്ങൾക്ക് റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഫുഡ്ഡ് ഐറ്റംസ് എന്തെങ്കിലും നിങ്ങള് തന്നെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ക്യാഷ് കുറയ്ക്കാം ഡിസ്ക്കൗണ്ട്സ് ഒക്കെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തു തരും മേഡം ആ അപ്പോൾ എങ്ങനെയാണ് വണ്ടിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുകയാണോ അതോ ഞങ്ങള് തന്നെ അറേഞ്ച് ചെയ്തു തരണോ മേഡം ആ ഓക്കെ എത്ര ദിവസത്തേക്കുള്ളതാണിത് ടു വീക്ക് ആ അപ്പോൾ ടു വീക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആൾക്ക് സാലറി കൊടുക്കണം അതുപോലെതന്നെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റേതായ ക്യാഷ് ഐറ്റംസൊക്കെ വരും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണെങ്കിൽ നമുക്ക് ഒക്കെയാണ് മേഡം ആ അപ്പോൾ ക്യാഷിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഓക്കെയാണ് ആ ഓക്കെ അപ്പം നിങ്ങള് വരുന്നതിൻ്റെയൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആളെയും കാര്യങ്ങളും അറേഞ്ച്മെന്റൊക്കെ ചെയ്തു വയ്ക്കാം